ഇപ്പോൾ എന്താന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഗവൺമെന്റിൽനിന്നും ഏഹ് ഗുണമായിട്ടു വന്നേക്കുന്നതെന്നുവെച്ചാൽ ഏഹ് കൃഷിരീതികൾക്കൊക്കെ വേണ്ടീട്ട് അവർ സബ്സിഡികളും അങ്ങനത്തെ ഇതൊക്കെ നൽകുന്നതൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ് പിന്നെ പാവപ്പെട്ടവർക്കെന്താണ് പറയുക വീട് ഏഹ് നിർമിച്ചുകൊടുക്കുക അതൊക്കെ എന്താ പറയാ നല്ലൊരു കാര്യം തന്നെയാണ് എഹ് പിന്നെ റോഡ് മെച്ചപ്പെടുത്തിയതൊക്കെ എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ സർക്കാർ ജനങ്ങൾക്കു വേണ്ടി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളാണ് ഏഹ് പിന്നെന്താണ് പറയാ പ ഇപ്പോൾ ഏഹ് കുട്ടികൾക്കായാലും പതിനെട്ട് വയസിനുശേഷം ലൈസൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഏഹ് ഒരു ലൈസൻസിനൊക്കെയൊരു നിശ്ചിതപ്രായം വെച്ചതുകൊണ്ടുതന്നെ കുട്ടികളൊന്നും വാഹനമോടിക്കുന്നില്ല അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ആക്സിഡന്റിന്റെ ഇതൊക്കെ കുറയുന്നു പിന്നെ ഈ എന്താ പറയാ എ ഐ ക്യാമെറയൊക്കെ വെച്ചതോടുകൂടി എന്താ പറയാ ഡ്രൈവിംഗ് രീതിയിലായാലും ഏഹ് നല്ലൊരു ഏഹ് ഇതുതന്നെയാണ് കാരണം ഡ്രൈവിങ്ങൊക്കെ നല്ല രീതിക്ക് കൊണ്ടുനടക്കാനൊക്കെ ആൾക്കാർക്ക് കഴിയുന്നുണ്ട് ഏഹ് ഇതൊക്കെ സമൂഹത്തിൽ എന്താ പറയാ ആൾക്കാർക്ക് ഏഹ് നല്ലൊരു നേട്ടം തന്നെയാണ് ഏഹ് ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുവാണെങ്കിൽ പൊതുജനങ്ങൾക്കൊക്കെ നല്ലൊരു സഹായം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം